എനിക്ക് പ്രിയങ്കരായിട്ടുള്ള അതായത് മലയാളി എഴുത്തുകാരോ കവികളോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടെണ്ടങ്കില് ഒരുപാട് ഉണ്ട് ഇപ്പോൾ നമുക്ക് വേണെങ്കി പറയാം ഇപ്പോ സുഗതകുമാരി അതുപോലെത്തന്നെ മറ്റേ ഇങ്ങനെ വയലാർ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ ഒരുപാട് വായിക്കാറുണ്ട് ഒരുപാട് രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് അപ്പം വൈക്കം മുഹമ്മദ് ബഷീറ് എന്താണ് നമുക്ക് നമ്മടെ ജില്ലക്കാരനാണ് നമ്മടെ ബേപ്പൂർ സുൽത്താൻ എന്നാണ് നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറയാറ് എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രചനകളൊക്കെ ഭയങ്കര രസമാണ് അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോ കവിതകളും അതുപോലെ ഓരോ കഥകളൊക്കെ വായിക്കാൻ ഭയങ്കര രസാണ് അതായത് നമക്ക് നോവല് കാര്യങ്ങളൊക്കെ നമ്മക്ക് പഠിക്കാനൊക്കെ ഇണ്ടാവും അപ്പം ആ നോവല് കാര്യങ്ങള് മതിലുകള് മതിലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കീ നമ്മള് അത് വായിക്കുമ്പോ ശരിക്കും നമ്മള് അവിടെ അതായത് നമ്മളവിടെ നമ്മളായിട്ട് നമ് ആ ക്യാരക്ടറ് നമ്മളും കൂടെ ആവുന്നത് പോലെ നമുക്കൊരു ഫീല് തോന്നും അപ്പം അത്രക്കും അതായത് അങ്ങനൊക്കെ ഒരു എഴുത്തുകാരന് ചെയ്യാൻ പറ്റണങ്കില് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കി അത് അത്രയും നല്ലൊരു വലിയ എഴുത്തുകാരനായിരിക്കണം അപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടം വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്